ഈ മലബന്ധം ഭേദമാക്കാന് ഞങ്ങളുടെ ഗ്രാമത്തില് പ്രചാരത്തിലുള്ള ചില നാട്ടുവൈദ്യങ്ങള് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മള് ചെറു ചൂടുവെള്ളം തയ്യാറാക്കി വയ്ക്കുക ആ ചെറു ചൂടുവെള്ളം നമ്മള് കുടിക്കുക എണീറ്റ ഉടനെതന്നെ ആ ചൂടുവെള്ളം നമ്മള് കുടിച്ചുകഴിഞ്ഞാല് നമ്മുടെ വയറിലേക്കെത്തുന്ന സമയത്ത് നല്ല ആശ്വാസം ഉണ്ടാവുകയും അതുവഴി നമുക്ക് മലബന്ധം ശരിയാക്കാന് സാധിക്കുകയും ചെയ്യുന്നു അതുപോലെത്തന്നെയുള്ള അടുത്തയൊരു നാട്ടുവൈദ്യമാണ് നമ്മൾ ഈ ചെറുപഴം ഉണ്ടാകുമല്ലൊ നമ്മടെ ഈ ചുറ്റുവട്ടത്തൊക്കെ കിട്ടുന്ന ആ ചെറുപഴം നമ്മള് എടുത്തുവെക്കുക എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ആദ്യംതന്നെ ആ ഒരു ചെറുപഴം നമ്മള് കഴിക്കുയാണെങ്കില് നമ്മുടെ മലബന്ധം ഒക്കെ നന്നായിട്ട് പോകാനും ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഭേദമാക്കാനും അത് സഹായിക്കുന്നുണ്ട് അടുത്തതെന്നു പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയുണ്ടല്ലോ സാധാരണ നമ്മുടെ ഔഷധങ്ങളായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരച്ചുകലക്കുക എന്നിട്ട് അത് എന്താ ചെറു ചെറുതേന് കേട്ടിട്ടുണ്ടാകും നമ്മുടെ നാട്ടിൽ വ് സ്ഥലത്തൊക്കെ കിട്ടുന്ന ഒരിതാണ് ചെറുതേന് എന്ന് പറയുന്നത് ആ തേനില് കൂട്ടി കലര്ത്തി നമ്മളെന്നും രാവിലെ സേവിക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങള് മലബന്ധമായിട്ട് പ ഉള്ള പ്രശ്നങ്ങള് എല്ലാം മാറിക്കിട്ടും